മതി സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനോർക്കുന്ന ഈ രണ്ടും തുല്യ പ്രധാനം കൊടുക്കണം കാരണമെന്താണെന്നു ചോദിച്ചാൽ ഇപ്പം പത്രത്തിലൊക്കെയാണെങ്കിൽ നമുക്ക് അതൊരു വായനാശീലം കൂടെ വളർത്തിയെടുക്കാം പത്രം മാസിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കെന്നു പറഞ്ഞാലങ്ങനത്തൊരു ശീലമെന്നു പറയുന്നതേ ഇല്ല കാരണം അത് അവർക്കെപ്പോഴും ഒരു മൊബൈൽ കാണുക അവർക്ക് മൊബൈൽ കൊറോണ വന്നേ പിന്നവർക്കെപ്പോഴും ഒരു മൊബൈലിൽ കൂടി ക്ലാസ്സും അതും ഇതും എല്ലാ ആയതു കൊണ്ട് അവർ എ മൊബൈലിനഡിക്റ്റായി പോയേക്കുകയാണ് അവർക്കെപ്പോഴും മൊബൈൽ കണ്ടാൽ മതി മൊബൈൽ കണ്ടു വായനയെന്നു പറയുന്നത് ഇല്ല സ്കൂൾ വിട്ടു വന്നാൽ അവരുടനെ മൊബൈലെടുക്കാൻ മൊബൈലിനെ കുറിച്ച് മൊബൈലിനെ മൊബൈലിൽ ആ എന്താ വന്നേ അല്ലെങ്കിൽ മൊബൈൽ യൂട്യൂബ് നോക്കാം ഇതെങ്ങനെ സമയം കളയുകയാണ് ചെയ്യുന്നത് കാരണം പത്രത്തിലാണെങ്കിൽ മൊബൈലെക്കാളും ടി വി കൊള്ളാം ടി വിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കന്നേരം തന്നെ ആ ന്യൂസൊക്കെ കിട്ടും ഇപ്പോൾ വേറുള്ളൊരു സ്ഥലത്ത് വേറുള്ള രാജ്യത്ത് എന്തു സംഭവിച്ചാലും നമുക്കതുടനെ നമ്മുടെ കയ്യിൽ സ്ഥലത്തെത്തി അതിനെ കുറിച്ച് കാണുകയേ അതിനെ കു എല്ലാം ചെയ്യുന്നുണ്ട് നം പക്ഷേ അതു നല്ലതാണ് പക്ഷെയെങ്കിൽ ഇപ്പെന്നോരോ റിട്ടയേഡായൊരു വ്യക്തി അങ്ങനെ കഷി വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ പത്രം വായിച്ച് പത്രം വെമ്പോസറി ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഈ ന്യൂസ് കണ്ടു കണ്ട് കണ്ടിരിക്കും എത്ര ന്യൂസ് കാണുന്ന ന്യൂസ് തന്നെയല്ലേ പിന്നെയും കാണുന്നത് അതിന് എത്ര സമയം ചിലവഴിച്ചാലും അവർ രാവിലെ തൊട്ട് വൈകിയിട്ടു വരെ ഈ ന്യൂസ് മാറി ചാനൽ മാറ്റി മാറ്റിയിട്ട് ന്യൂസ് കണ്ടു കൊണ്ടിരിക്കും ഇപ്പം ഒരു സീരിയൽ കാണുന്നോരാണെങ്കിൽ ആ സീരിയലിനങ്ങടിമയായിട്ട് അവർ വീട്ടിലത്തെ പണികൾ പോലും ചെയ്യാൻ താത്പര്യം കാണിക്കാതെ അവരീ സീരിയലിൻ്റെ മുൻപിൽ സീരിയലേ എന്നും പറഞ്ഞ് തിരിച്ചിരിക്കാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊരു വായനയോ ഒരു പത്രം വായനയോ അങ്ങനത്തൊരു കാര്യങ്ങളും ഇല്ല ഒരു വായനയും പത്രവുമല്ല നമ്മുടെ പല്ല് കടലിലെ ഒരു കുടുംബ ജ്യോതിസ് കത്തോലിക്ക കുടുംബം അങ്ങനെയുള്ള എന്തെല്ലാം മാസികളുണ്ട് ഇതൊന്നും ആരും തിരിഞ്ഞു പോലും നോക്കാറില്ലിപ്പം വായിക്കാൻ സമയം ഇല്ല ഒന്നു പത്രം വായിച്ചോ അല്ലെങ്കിൽ ഈ മാസികളൊക്കെ വരുത്തി അല്ലെ പത്രം വരുത്തി ഒന്നാ പ് പ്രധാനപ്പെട്ട ഹെഡിംഗുകളതൊന്നു നോക്കുക നോക്കിയിട്ട് അതവരതേ പടി അവർ അങ്ങനെ വെക്കും മു പെട്ടെന്ന് മറച്ചു വെച്ചിട്ടവർ പെട്ടെന്ന് ജോലി പെട്ടെന്ന് അവരുടെ പണിയും തീർത്തിട്ടവർ പെട്ടെന്ന് പെട്ടെന്ന് അവർ ഈ ടി വിയുടെ മുമ്പിലിരിക്കാനിരിക്കാൻ അല്ലെ മൊബൈലിൻ്റെ മുമ്പിൽ മൊബൈലായാലും ഇത് യൂ ഓ വാട്ട്സാപ്പും യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നോക്കി കാരണം കൊള്ളത്തില്ലെന്നല്ല നോക്കല്ലെന്നല്ല നോക്കണം അതിനൊക്കെ ഒ പരിധി ഒരു സമയമുണ്ട് ഒരിച്ചിരി കുറച്ചു നേരം അതു സമയം കൊടുക്കാൻ അതു കഴിഞ്ഞു ബാക്കി വായനക്ക് കൂടുതൽ ഇമ്പോട്ടൻറ്റ് കൊടുക്കാണെങ്കെന്തെല്ലാം ഇതറിയാം നേരാ അതു വഴി നല്ല പോലെ അറിവു കിട്ടുന്നുണ്ട് കിട്ടുന്നില്ലെന്നല്ല അതു ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് ഈ ഫോണുകളും മൊബൈലുകളും ടി വിയിലൊക്കെയായാലും ദുരുപയോഗം ചെയ്യുന്ന അതിനാവശ്യത്തിൽ കൂടുതലത് സമയം എടുത്ത് അവർ ഇതു ചെയ്യുവാ മൊബൈൽ കണ്ടു കൊണ്ടിരിക്കുന്നു അയ്യോ പിന്നെ പണി പോലും ചെയ്യാതെ അവരിതിൻ്റെ ഇതിൻ്റെ പുറകെ അവർ ഈ ടി വി കാണാനിരിക്കും അല്ലേ സീരിയൽ കാണാനിരിക്കും ന്യൂസ് കാണുകയാണെങ്കിൽ ന്യൂസ് കണ്ടു കണ്ടു കണ്ടിരിക്കുന്നു നമ്മുടെ വീടിലൊക്കെയായാലും ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിള്ളേ പിള്ളേർക്ക് എപ്പോഴും പിള്ളേർ പറയുന്ന ആ സ്കൂളിൽ നിന്നവർക്ക് എന്താ പിന്നെ മൊബൈലിൽ അവർക്ക് മെസ്സേജ് വന്നു അല്ലേ മെസ ക്ലാസ്സിലെ നോട്ട് മൊബൈലിൽ കൂടി കൊടുത്തു അല്ലേ പിള്ളേർ അവർ മൊബൈലിൽ നിന്ന് അവർക്കയച്ചു കൊടുക്കും മൊബൈലിൽ കൂടി മൊബൈലിൽ നിന്ന് ആ മെസ്സേജ് അയച്ചു കൊടുക്കുന്നു അല്ലേ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളയച്ചു കൊടുക്കുന്നു ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ അതൊന്നും അവരുടെ കയ്യിൽ അയച്ചു കൊടുക്കുന്നില്ല ഇവർക്കീ മൊബൈൽ കാണാൻ ഇപ്പോൾ ഇപ്പം നമ്മുടെ പഴയ തലമുറക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല നമ്മളിതു നോക്കുമ്പോൾ നേരാ അവർ നോക്കും അവർ പെട്ടെന്നത് ഇതു മാറ്റി കളയും അടുത്ത പിന്നെ അവർ മൊബൈൽ നോക്കും ഇതു തന്നെയാണ് പണി മൊബൈൽ നോക്കി അവരിതെന്തു ചെയ്യുന്നത് ഓ മൊബൈൽ വേറെ യൂട്യൂബും അതും ഇതും അതിലെന്തെല്ലാമുണ്ട് നല്ല കാര്യങ്ങളുണ്ട് ചള്ള് കാര്യങ്ങളുണ്ട് അതു നല്ല കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അതു പിന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർക്കും ശരിക്കും പറഞ്ഞാൽ പിള്ളേർ ഇപ്പോഴത്തെ തലമുറയെല്ലാം പിഴ പിഴച്ചു പോകാണ് അവർക്കു നല്ലത് തിരഞ്ഞെടുക്കാൻ അവർക്കും അറിയത്തില്ല അവർക്ക് കുറേ ക്രിക്കറ്റ് കാണുക അങ്ങനെയാണ് അതിനെ അതു കണ്ടു കൊണ്ടിരിക്കാൻ ആ പഠിക്കേണ്ട സമയമാണാ പിള്ളേരുടെ സമയം പോകണത് വീട്ടുകാർക്കായാലും ഒരു ജോലി ചെയ്തു തീർത്തിട്ടവർക്ക് പെ ട്ടെന്നീ ടി വിയുടെ മുൻപു പോയിരിക്കാൻ സീരിയൽ കാണുവാൻ ഇതിനൊക്കൊരടിമയായി പോകുന്ന പോലെയാണവരൊക്കെ ഇരിക്കുന്നത് അങ്ങനെയല്ല വേണ്ടിയിത് കാരണം മൊബൈലും അതിനെയൊക്കെയൊരു സമയം കുറച്ചു സമയം മൊബൈൽ ടി വിക്കാണ് കുറച്ചു സമയം പ്രാർത്ഥന കുറച്ചു സമയം ഇതു വായന അങ്ങനെ അങ്ങനെ ഓരോ സമയത്തിന് ഒരു ഇതഡ്ജസ്റ്റ് ചെയ്തെയ്യുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ലതാണ് മൊബൈലും നല്ലാണ് ടി വിയും നല്ല അതു കാരണം അതിനെ കുറിച്ചു പ്രത്യേകം ഒന്നും പറയാൻ പറ്റില്ല കൂടുതൽ എന്നാലും എൻ്റെ ടി വി മൊബൈൽ കാണുന്നതിനേക്കാളും എന്നെ സംബന്ധിച്ചോളം എനിക്കിഷ്ടം വാ വായനയാ വായന പിന്നെ ടി വി കാണുന്ന നല്ലാ ഒരു കുഴപ്പവും ഇല്ല ഓക്കെ